എൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തില് ജീവിക്കുന്ന ഞാൻ എന്ന നിലയ്ക്കു വിദ്യാഭ്യാസം എന്നു പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു കുട്ടിക്കും വിദ്യാഭ്യാസം നൽകുക എന്നു പറയുന്നത് അവൻ്റെ അവകാശമാണ് അതു കൊടുക്കുക എന്നുള്ളതു നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് അപ്പോൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മകൻ നമ്മുടെയൊരു സഹോദരൻ നമ്മുടെ ഒരു സുഹൃത്ത് എന്ന രീതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് അവരെ നമ്മൾ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് നമ്മുടെ ഇത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഉപരി അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നു തിരിച്ചറിഞ്ഞ് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ നല്ലൊരു മേഖലയിലേക്ക് തിരിച്ചുവിടേണ്ടതാണ് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അതായത് അംഗന്വാടിയിൽ തുടങ്ങി അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളിൽ തുടങ്ങി അവരുടെ എൽ പി യു പി ഹൈ സ്കൂൾ കാലഘട്ടങ്ങൾ അതും കഴിഞ്ഞ് ഒരു ഹയർ സെക്കൻഡറി കാലഘട്ടം കഴിഞ്ഞിട്ടായിരിക്കും കൂടുതലും നമ്മളവരെ വഴിതിരിക്കേണ്ടത് അപ്പോള് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്നു പറയുന്നത് എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ടും ഇതിനു മുൻ തലമുറയെ നോക്കുകയാണെങ്കിൽ എല്ലാ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ട് അപ്പോള് അതിന്റേതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി എന്നു പറയുന്നത് ഒരു അടിസ്ഥാനകരമായിട്ടുള്ളൊരു വിദ്യാഭ്യാസത്തിൽ യായിട്ട് മാറിയിട്ടുണ്ട് അപ്പോള് അതിൽ നിന്നെല്ലാം കൂടുതൽ നമ്മുടെ കുട്ടിക്ക് എത്ര കഴിവുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന് എത്ര കഴിവുണ്ടോ എന്നതിനുസരിച്ചിട്ട് അവരെ നാല്ലൊരു രീതിയിലേക്കു വഴിതിരിച്ചു വിടേണ്ടതാണ് ഇപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോള് പഠിക്കുവാനായിരിക്കില്ല കഴിവ് അതിൽ മാറി ചിലപ്പോള് കായികം കായികപരമായിട്ടും അല്ലെങ്കിൽ കലാപരമായിട്ടും ഒക്കെയായിരിക്കും അവർക്കു കൂടുതൽ കഴിവുണ്ടാവുക പക്ഷെ എന്താണോ അവരുടെ കഴിവ് ഇപ്പോൾ ഒരു ഒരു കലാ രംഗത്താണ് അവരുടെ കഴിവ് എന്നുണ്ടെങ്കിൽ അവരെ നല്ലൊരു ഗായകനാക്ക അല്ലെങ്കി ഒരു നല്ലൊരു നർത്തകിയാക്കാനായിട്ട് നമ്മുടെ നാട്ടില് അതിന് ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം അധ്യാപകനും എല്ലാം നമുക്കുണ്ട് അപ്പോള് അവരെ നമ്മുടെ താൽപര്യങ്ങൾക്ക് ഉപരി ചിലപ്പോൾ നമുക്ക് അവരെ ഒരു ഡോക്ടറാക്കണമെന്നോ അല്ലെങ്കിൽ ഒരു അധ്യാപകനാക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നമ്മുടെ ആഗ്രഹം പക്ഷേ ആ കുട്ടി പഠിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അവന് എന്താണോ അവരുടെ ജീവിതത്തിലായിത്തീരേണ്ടത് എന്നൊരു ഒരു കാഴ്ചപ്പാടു വേണം ആ കാഴ്ചപ്പാടിനെ ബഹുമാനിക്കുക എന്നുള്ളതു നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോള് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നു മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങളെ അവരുടെ നേട്ടങ്ങളും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക ഇനി ഒരുപക്ഷെ അവർ ചിന്തിച്ചുവച്ചിരിക്കുന്നതായിരിക്കില്ല അതിൻ്റെ കാര്യങ്ങൾ അപ്പോള് അത് എന്താണെന്ന് അവരെ മനസ്സിലാക്കിക്കൊടുത്ത് അതു തന്നെയാണ് അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അതു തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അവരെക്കൊണ്ട് ഉറപ്പു വരുത്തിച്ചിട്ടതിനുശേഷം മാത്രം അവർക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും നമ്മള് ഒരുക്കിക്കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മകൻ എന്ന രീതിയിൽ അവൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്നു വിചാരിക്കുന്നത് ഞാൻ ഇപ്പോഴും ഒരു ഉയർന്ന ഡിഗ്രി അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഡിഗ്രയിലെത്തിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും എൻ്റെ ആഗ്രഹമായിരിക്കും ഒരു ഡിഗ്രി കഴിയിക്കുക അതുകഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവനെ തയ്യാറാക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹപ്രകാരം ചിലപ്പോൾ അവനെ ഒരു ഡോക്ടറാക്കണമെന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അവനെ എം ബി ബി എസും അല്ലെങ്കിൽ ആയുർവേദം ആലോപ്പതി അങ്ങനെ പല കാര്യങ്ങളും നമുക്കിപ്പോൾ നാട്ടിലൊണ്ട് അപ്പോള് അതില് ഏറ്റവും നല്ലത് ഏതാണോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവനൊരു ജോലി നേടാൻ എന്നതിലുപരി അവൻ്റെ കഴിവിനനുസരിച്ച് അവന് പറ്റുന്നത് ഏതാണോ എന്നുള്ള രീതിയില് ഒരു സേവനം നടത്തുന്ന ഒരു മേഖലയിലേക്കു വഴിതിരിച്ചു വിടുവാനായിരിക്കും എനിക്ക് എപ്പോഴും ആഗ്രഹം ഇപ്പോൾ സേവനം എന്നു പറയുന്നത് എല്ലാ എല്ലാ മേഖലകളിലും ഉണ്ടെങ്കിൽപ്പോലും ആരോഗ്യപരമായിട്ടുള്ള മേഖലകൾ നമുക്കു കൂടുതൽ സഹായിക്കുവാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ കഴിവുകൾ അവർക്കു കൊടുക്കാനായിട്ടു സാധിക്കും അങ്ങനെ ഒരു രീതിയിലേക്ക് അവര് വഴിതിരിച്ചു വിടുവാനായിരിക്കും എനിക്കേറ്റവും കൂടുതൽ ആഗ്രഹം എന്നിരുന്നാൽപ്പോലും എൻ്റെ മകനു ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും ആഗ്രഹമുണ്ടാവുക അപ്പോള് ആ കാര്യം എന്താണെന്നു ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉത്തരാവാദിത്തമാണ് അതും മനസ്സിലാക്കി അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ വഴി തിരിച്ചുവിട്ട് അവര് ഏറ്റവും നല്ല രീതിയിൽ അവര് ഏതു മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതിൽ ഏറ്റവും നല്ല കഴിവു കൊടുക്കുക എന്നു പറയുന്നതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്തെങ്കിലും ഒക്കെയായിത്തീരുക എന്നുള്ളതിനു പകരം എന്താണോ ആകുന്നത് അതിലെല്ലാമായിത്തീരുക എന്നു വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോള് നമ്മളെവിടെ ഇരിക്കുന്നോ നമ്മുടെ കഴിവിൻ്റെ പരമാവധി കൊടുക്കുക അതുകൊണ്ടുതന്നെ നമുക്ക് നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മള് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മള് ഉപയോഗിക്കുന്നുണ്ട് എന്നു നമ്മള് ഉറപ്പു വരുത്തണം ഒരിക്കലും നമ്മള്ക്കു കിട്ടിയ ഒരു കാര്യം ചിലപ്പോൾ മറ്റുള്ളൊരാൾക്കു കിട്ടണമെന്നില്ല മറ്റുള്ളവരാഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കും ചിലപ്പോൾ നമുക്കു കിട്ടിയിരിക്കുന്നത് അപ്പോള് നമുക്കു കിട്ടിയ കാര്യങ്ങളിൽ നമ്മളേറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെന്താണോ വിദ്യാഭ്യാസം നടത്തിയത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നാൽ മാത്രമേ നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ വിദ്യാഭ്യാസം കിട്ടി അതിൻ്റെ ഒരു ഏറ്റവുമുന്നതിയിൽ എത്തുന്നതിലുപരി അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മനുഷ്യനാവുക അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും എല്ലാ മോശവശങ്ങളും മനസ്സിലാക്കി സമൂഹത്തിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രാപ്തരായിട്ടിരിക്കുന്ന ഒരാളായിരിക്കണം നമ്മളെന്നു ഞാൻ ഇതിൽക്കൂടെ വിശ്വസിക്കുന്നു